വിദ്യാഭ്യാസത്തെ പറ്റി പറയാനാണെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിൽ അധ്യാപക വളരെ കുറവാണ് പരിശീലനത്തിന് കുട്ടികൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട് മിക്ക ദിവസങ്ങളിലും ക്ലാസ്സിൽ ടീച്ചർമാർ അറ്റൻഡ ചെയ്യുന്നില്ല അതിന് അതുപോലെ തന്നെ അതിൻ്റെതായ രീതിയിൽ ക്ലാസ് എടുക്കണമെങ്കിൽ അധ്യാപകർ വേണം പിന്നെ അതുകൊണ്ട് പിള്ളേർക്കാണെങ്കിലും സ്റ്റഡിസിൽ ക്ലാസ്സുകൾ ഇപ്പം ശനിയാഴ്ച ഒന്നും ക്ലാസ്സുകൾ ഇല്ലാത്തതു കൊണ്ട് അത് വളരെ ബുദ്ധിമുട്ടിൽ കൂടെ പോവുകയാണ് പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ സർട്ടിഫിക്കേഷൻ ആവശ്യതകൾ ലഘൂകരിക്കാനായിട്ട് അതിന് വേണ്ടുന്ന സജീകരണങ്ങൾ ഒരുക്കുക ഗവൺമെൻറ് അതിന് വളരെ ഈ സെലിവസ് പിന്നെ മാറ്റി എടുക്കുന്നതിനോട് നമുക്ക് ഒരു താല്പര്യമുണ്ട് അത് അങ്ങനെയാണ് അത് പിള്ളേർക്ക് പഠിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് അതിൻ്റെ മാറ്റിയെടുക്കുക സിലബസ് മാറ്റിയെടുത്തതിന് ശേഷം പിള്ളേരെ നല്ല രീതിയിൽ അധ്യാപകർ ഒന്ന് പരിശീലിപ്പിച്ചെടുത്തു കൊണ്ടു വരികയാണെങ്കിലും നമുക്ക് അതിൻ്റെതായ ഇതിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും കേരളം വിദ്യാഭ്യാസത്തിൽ സർട്ടിഫിക്കേഷൻ പറയാനുള്ളത് അതാണ് അത് വേറെ എന്താണ് ചെയ്യേണ്ടത് പിന്നെ കേരളത്തിൽ വിദ്യാഭ്യാസം വളരെ പരിതാപരമായിട്ടാണ് ഇപ്പം നടന്നു പോകുന്ന കാര്യം എന്താണെന്ന് വച്ചാൽ പിള്ളേരെ നിയന്ത്രിക്കാൻ പാടില്ല പിള്ളേരെ അടിക്കാൻ പാടില്ല പിള്ളേർ വഴക്ക് പറഞ്ഞാൽ അത് കേസാകും പിന്നെ അത് അതിൻ്റെ പോരായ്മ കൊണ്ട് പിള്ളേർ മയക്കുമരുന്നിനും കഞ്ചാവിനും എല്ലാം അടിമയായി അധ്യാപകരെ ബഹുമാനിക്കാത്ത കാലത്തിലേക്ക് വന്നു കൊണ്ടിരിക്കുകയാണ് അത് ഗവൺമെൻ്റ് നടപ്പിലാക്കിക്കൊണ്ട് പിള്ളേരെ ശിക്ഷിക്കുവാനായിട്ടുള്ള ഒരു ഇതും കൂടെ കൊടുക്കണം അല്ലാതെ അടിക്കരുതെന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് അത് വളരെയധികം പിന്നെ ഇതാണ് പിള്ളേരെ പഠിപ്പിക്കാൻ ഒരു അമ്മ ഒരു മാതാപിതാക്കൾ എന്തു മാത്രം കിടന്നു കഷ്ടപ്പെട്ടാണ് വരുമ്പോൾ പിള്ളേരെ സ്കൂളിൽ കൊണ്ടാക്കുന്നത് ഇപ്പോൾ അവമാർ പഠിക്കാതെ ചെല്ലുമ്പോൾ ഒരു അടി കൊടുത്താൽ അത് കേസാകുന്നു പിള്ളേരെ തൊടാൻ പാടില്ല എന്നെല്ലാം പറഞ്ഞു ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്താണ് പറയാനുള്ളത് അതെല്ലാം കളഞ്ഞു ഗവൺമെൻറ് നല്ല ഒരു ഉത്തരവാദത്തോടു കൂടി നല്ല ഒരു ഇത് ചെയ്തു കിട്ടിയെങ്കിൽ മാത്രമേ നമ്മുടെ പിള്ളേടെ ഭാവിജീവിതത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ